ഞങ്ങൾടെ പ്രദേശത്ത് ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അത് പണ്ട് കാലത്തുള്ളതു പോലെയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് നിലനിൽക്കുന്നതായി കാണുന്നില്ല പണ്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് പുറത്തുപോയി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ടു തന്നെ തങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് പ്രമുഖരായ ആളുകൾ നിയമപരമായ വിവരമുള്ള ആളുകളെയൊക്കെ സമീപിച്ച് അവരുടെ മധ്യസ്ഥതയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന രീതി കണ്ടിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ആ ശൈലിയൊക്കെ മാറി ഇത് ഇപ്പോൾ എന്തെങ്കിലും പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനുകളിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ ഒക്കെ പോവുന്ന പ്രവണതയാണ്

അത് വ്യക്തിപരമായുള്ള സ്വാധീനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രമുഖരായ മറ്റു ആളുകളെ ഇടപെടുത്തി ശുപാർശകളിലൂടെ ഒക്കെ പോലീസ് സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ വിധഗ്ധരായ അഭിഭാഷകരെ ഒക്കെ നിയമിച്ച് കോടതിയിലൂടെയും തങ്ങളുടെ ഭാഗം വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അതിന് ഗ്രാമ നഗര വ്യത്യാസങ്ങൾ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഒരു രീതിയാണ് കണ്ടു കൊണ്ടിരിക്കുന്നത് അടുത്തകാലത്ത് എൻ്റെ അറിവിൽ ഒരു ഒരു വഴി സംബന്ധിച്ച് തർക്കം ഞങ്ങളെ നാട്ടിലുണ്ടായി വഴിക്ക് വീതി മതിലൊക്കെ കെട്ടിയിരിക്കുന്ന വസ്തുവാണ് വഴിക്ക് വീതി കൂട്ടി കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ആണ് അതിന് അതിന് ചിലവുകളൊന്നും വഹിക്കാൻ അവർ തയ്യാറല്ല ഞങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ രീതിയിൽ ആവശ്യമായ സ്ഥലം തന്ന വഴി വീതി കൂട്ടി എടുക്കണം പുതുതായി മേടിച്ച കാർ അതിലെ കൊണ്ട് പോകണം ഇങ്ങനെയൊക്കെയുള്ള ബാലിശമായ ചില നിലപാടുകൾ ആയിരുന്നു അതിന് പിന്നിൽ ഉണ്ടായിരുന്ന തർക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ആണ് പോയത് പോലീസ് സ്റ്റേഷനിൽ പല ദിവസങ്ങൾ കയറിയിറങ്ങി അവസാനം അത് പരിഹരിച്ചു കൊടുക്കുകയായിരുന്നു കാരണം നിലവിൽ നിലവിലുള്ള രീതി തന്നെ തുടരുന്നു കാരണം വഴിക്കു വേണ്ടി സ്ഥലം കൊടുക്കേണ്ട വ്യക്തി വീണ്ടും വസ്തു നഷ്ടം വരുന്നതു കൂടാതെ നല്ല ചിലവ് ചെയ്ത് കെട്ടിയിരിക്കുന്ന മതിൽ ഇടിച്ച് കൊടുത്ത് വഴി കൊടുക്കേണ്ടത് ഇല്ല എന്നാണ് പോലീസുകാർ അതിനകത്ത് തീരുമാനം ഉണ്ടാക്കിയത് അത് താൽക്കാലികമായിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു നിൽക്കുന്നു